പട്ടണങ്ങൾ താമസം കൊണ്ട് അങ്ങനെ ആയില്ല യുവ തലമുറയ്ക്ക് ജീവിത പങ്കാളിയെ കിട്ടാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തൊരു നിലയിൽ എല്ലാവരും നോക്കും വിദ്യാഭ്യാസം നല്ല ഒരു ജോലിയും അതുപോലെ ജീവിക്കാനുള്ള ചുറ്റുപാടും ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പട്ടണങ്ങളിൽ തന്നെ പാർക്കണം എന്നില്ലല്ലോ അത് പോലെ തന്നെ എനിക്ക് യുവ തലമുറയോട് പറയാനുള്ളത് നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നേടുക നല്ല ഒരു ജോലി വാങ്ങിക്കുക അത് നല്ല ഒരു സ്വഭാവമായി നല്ല ഒരു ക്യാരക്റ്റർ ഉണ്ടാക്കുക അങ്ങനെ ഉള്ളവർക്കൊക്കെ ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം